നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്തെന്നു പറയുമ്പം കൈത്തൊഴിലായിട്ട് ഇങ്ങനെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അത് കളിമണ്ണുപയോഗിച്ച് അതേപോലെ നമ്മൾ പാഴാക്കുന്ന പല സാധനങ്ങൾ ഉപയോഗിച്ചും ഇതേപോലെ നിർമ്മിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഞങ്ങളുടെ ഈ സമൂഹത്തിൽ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പ്രോഗ്രാംസ് അവർക്കുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ കഴിവ് മെച്ചപ്പെടുത്താനും അതിന് ആ അതുപോലെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേയധികം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഇതിനു വേണ്ടിയിട്ട് കുറേ സബ്സിഡി കാര്യങ്ങളൊക്കെ വില കുറച്ചു നൽകുക കൊടുക്കുന്നവർക്ക് വില കുറച്ച് നൽകുക അതേപോലെ ഇത് നിർമ്മിച്ചവർക്ക് അതിൻ്റേതായ ലാഭം കിട്ടുകയെന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്